അത് എവിടെ എവിടെ എവിടെ എവിടെ അതേകത്ത് അളകപ്പ യൂണിവേഴ്സിറ്റി അ പറയൂ ആണോ അപ്പം ഈ മൂന്ന് സ് ബാക്കി മൂന്ന് സ്വണും എവിടെയാ അപ്പം താമസിച്ചത് വീട്ടിൽ പോയവരോ ഓക്കെ ഓക്കെ നാ നാ അ ആ ഓ പേര് എങ്ങനെയാന്നാണ് പറഞ്ഞത് അല്ല താങ്കളുടെ പേര് അത് ഓക്കെ ഓക്കെ ഓക്കെ അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് എങ്ങനത്തെതാണ് നിങ്ങളുടെ അതിൽ

ഓ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ വീടുകളും അങ്ങനത്തെ കേസുകളും ഞങ്ങൾ എടുക്കാറില്ല പിന്നെ നിങ്ങൾ വിദ്യാർത്ഥികളായത് കൊണ്ട് നോക്കാം അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഒറ്റ റൂമായിട്ടുള്ളത് കിട്ടുകയുള്ളൂ അത് രണ്ട് പേർ കൂടെ കിടക്കണം ബാത്റൂമ് പുറത്തായിരിക്കും ബാത്റൂമ പുറത്തായിരിക്കും

പിന്നെ രാത്രി പുറത്തായിരിക്കും നിങ്ങൾ ബക്കറ്റും വെള്ളവും എല്ലാം പിന്നെ ഇല്ല ഇല്ല ഇല്ല അത് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീട് നമുക്ക് തരാൻ പറ്റുകയുള്ളൂ മൂവായിരം ആന്ന് പറയുമ്പോഴത്തേക്ക് അറ്റാച്ചഡ ആയിട്ടുള്ള നമുക്ക് കിട്ട അറ്റാച്ച്ഡ് നിങ്ങള് പറഞ്ഞ ഏരിയൽ റൂമുകളൊക്കെ ഇത്തിരി കൂടുതൽ ഇതാണ് ഈ വിദ്യാർത്ഥികൾ കൂടുതലാൾ എടുക്കുന്നത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതാണ് പറഞ്ഞത് സാധനമുണ്ട് സാധനമുണ്ട്

തണുപ്പ് സമയത്ത് തണുപ്പ് സമയത്ത് തണുപ്പാണ് കിട്ടുന്നത് ആ ഇല്ല അത് കിട്ടില്ല നിങ്ങൾ ഒരു മൂവായിരത്തി അഞ്ഞൂറിന്ന് ഓ മൂവായിരത്തി അഞ്ഞൂറന്ന് ആഹാരം എല്ലാം സ്റ്റവും കൂടി ഞാൻ തരാമെന്ന് ആ തുണിയും കഴുകണം അതേ രണ്ടായിരത്തി ആഹാരത്തിന് നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് ഞാൻ ഈ പറയുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെസുണ്ട് അവിടെ നിങ്ങൾ മന്ത്ലി ഇവിടുന്നൊരു നൂറ് മീറ്ററ് മാറിയാണ് ആ നടന്ന് വരണം അതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷന ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അറ്റാച്ചഡ് ആയിട്ടുള്ള ഓക്കെ നിങ്ങളുടെ സൗകര്യപ്രദം എങ്ങനെയാന്നുള്ളത് നോക്ക് അതുമല്ല നിങ്ങൾ ഇത്തിരി എമൗണ്ട് കൂടുതൽ ഇറക്കണുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട് കിച്ചന ആയിട്ടുള്ള റൂമ് അപ്പം നിങ്ങൾക്ക് തന്നെ പാചകം ചെയ്യൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം ഇത് നമ്മൾ ഫി ജി പോലുള്ള ഇതല്ല നമ്മൾ രണ്ട് രീതിയിലുള്ള ഇതു ഉണ്ട് നിങ്ങൾക്ക് അനുയോജ്യപ്രദമായത് നിങ്ങളുടെ പൈസയും നിങ്ങൾ ഇതെല്ലാം സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ തെരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിന് പറഞ്ഞിരിക്കുന്ന വീട് അനുസരിച്ച് ഒരു ഓണറ് താഴത്താണ് മേളത്തെ റൂ ഒരു റൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഓണറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് വേറെ ഒരു കുറച്ച് റിസ്ട്രിക്ഷൻസ് വെക്കും ആ രീതിയിലായിരിക്കും സ്വയം നമ്മുടെ ഓണറെ നോക്കാൻ നിൽക്കണ്ട

അതേ

അത് നിങ്ങൾ ഞാൻ പറയുന്ന അത് നിങ്ങൾ ആ ഓണറായിട്ട് സംസാരിച്ച് അത് ഡീൽ ചെയ്യണ്ടാന്നുള്ളത് ഞാൻ ജെസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ഓക്കെ